ഹലോ ശ്രുതിയുടെ അമ്മയല്ലേ ആ ഇത് ഡാൻസ് ക്ലാസിനായിരുന്നേ ആ ടീച്ചറെ മോളുടെ ഒരു കാര്യം പറയാൻ വേണ്ടി വിളിച്ചതാണേ കുട്ടി ഇച്ചിരെ ഉഴപ്പാണ് ഉഴപ്പെന്ന് പറഞ്ഞാല് സ്റ്റെപ്പ്സ് ഒന്നും കറക്റ്റായിട്ട് കളിക്കുന്നില്ല ശ്രദ്ധിക്കുന്നില്ല അങ്ങനെയുള്ള ചില കാര്യങ്ങള് പറയാനായിരുന്നു ഞാൻ കമ്പ്ലൈൻ്റ് പറയാനായിരുന്നു അത് താല്പര്യ ഇല്ലായ്കയാണ് അത് കൂട്ടുകെട്ടിൻ്റെ ആണ് കൂടുതലും പല പിള്ളാരില്ലെ അപ്പം കൂട്ടുകെട്ടിൻ്റെ കൂട്ടുകെട്ടിൻ്റെതായ ചില ഇതുണ്ട് ഞാനതവളോട് പറഞ്ഞിട്ടുണ്ട് ടീച്ചർ ഒന്ന് ശ്രദ്ധിക്കണം അല്ല ടീച്ചറല്ല സോറി കോ ചെ കുട്ടിയുടെ അമ്മ ഒന്നെ കുറച്ചും കൂടെ ഒക്കെ ഒന്ന് അവളോടൊന്ന് പറഞ്ഞെ ആ അ അ ആ മടിയൊക്കെ ഒന്ന് മാറ്റി കൊടുക്കണമേ എന്നാന്നു ചോദിച്ചാല് എല്ലാ എല്ലാ പിള്ളേരും സ്റ്റെപ്സ് ഒക്കെ പഠിച്ചു പഠിച്ചു പോകുമ്പം ഒരാളെ മാത്രം നമുക്ക് മാറ്റി നിർത്താനേ പറ്റത്തില്ലല്ലോ അപ്പം അതു കൊണ്ട് ആ ഓക്കേ ഓക്കേ ആ അങ്ങനെ അങ്ങനെ പഠിപ്പിക്കാം പഠിപ്പിക്കാം കുഴപ്പമൊന്നുമില്ല കുട്ടിയുടെ താല്പര്യം അനുസരിച്ച് തന്നെ നമുക്കത് ചെയ്യാം എന്തോ ആ ഓക്കേ ഓക്കേ ഓക്കേ ഓക്കേ ഓക്കേ ഓക്കേ അ ആ കുഴപ്പമില്ല കുഴപ്പമില്ല അവൾക്ക് ക്ലാസ്സിക്കൽ വേണ്ടെങ്കില് അങ്ങനെ പഠിപ്പിക്കാം എങ്ങനാണോ എങ്ങനാണോ താല്പര്യം എന്ന് വെച്ചാൽ പറഞ്ഞാൽ മതി അതുപോലെ ചെയ്യാം കുഴപ്പം ഒന്നുമില്ല

ആ ഓക്കെ ഓക്കെ ആ ഇപ്പം കുഴപ്പമില്ല നമുക്ക് നമുക്ക് പഠിപ്പിക്കാം കുഴപ്പമൊന്നുമില്ല നമുക്ക് കുട്ടിയുടെ താല്പര്യം ആണല്ലോ അപ്പം നമ്മള് അടിച്ച് ഏല്പിക്കേണ്ട കാര്യമല്ലല്ലോ ക്ലാസിക്കിൽ വേണ്ടെങ്കിൽ അ മ് ആ ആ അ അ ഹഹഹ ആ കഴിവതും കഴിവതും നമ്മളത് നോക്കാം ശ്രമിക്കാം ശ്രമിക്കാം ശ്രമിക്കാം അപ്പം ഏയ് ഇല്ല അങ്ങനെ ശല്യമായിട്ടൊന്നും അങ്ങനെ ഒന്നുമില്ല എല്ലാം പുള്ളിക്കാരി ഡാൻസിൻ്റെ കാര്യത്തില് ഇച്ചിരെ ഒ ഉഴപ്പ് കാണിക്കുന്നെന്നേ ഉള്ളൂ അല്ലാതെയുള്ള വഴക്കും കാര്യങ്ങളോ ഒന്നുമില്ല ആ അപ്പം ഞങ്ങള് അത് പറഞ്ഞവളോട് മനസ്സിലാക്കിപ്പിക്കാം കുഴപ്പമില്ല ആ ഓക്കെ ഓക്കെ ശരി ശരി ആ ഓക്കെ ഓക്കെ ഞങ്ങളും ഞങ്ങളും പറയാം ഞങ്ങളും പറഞ്ഞു കൊടുക്കാം കുഴപ്പമൊന്നുമില്ല ഞങ്ങള് കഴിവതും ഞങ്ങളാൽ കഴിയുന്നത് ഞങ്ങള് ചെയ്യാം ആ പോ ഒപ്പം തന്നെ പഠിപ്പിക്കാം പഠിപ്പിക്കാം ഓക്കെ ഓക്കെ ശെ ശരി ശരി ശരി ഓക്കെ ഓക്കെ ശരി ഓക്കെ ഓക്കെ ശരി